പിന്നെ ഞാനെ ഇന്ന് പിന്നെ എന്റെ ഒരു കാറ് കംപ്ലയിൻറ്റ് ആണേ അപ്പം വര്ഷോപ്പ് അല്ലേ ഇത് വര്ഷോപ്പ് അല്ലേ അപ്പം ഞാനേ എന്റെ പിന്നെ കാറ് ഞാന് പുറത്തായിരുന്നെ വന്നിട്ട് വണ്ടി ഇപ്പോൾ ഞാനൊരു ഒരു രണ്ടാഴ്ച കൊണ്ട് വണ്ടി എടുക്കുന്നില്ലായിരുന്നു വണ്ടി എന്റെ ഏ സി വര്ക്ക് ചെയ്യുന്നില്ല വണ്ടി സ്റ്റാര്ട്ട് ആവുന്നില്ല ആപ്പഴ് എന്തുവാ കംപ്ലെയിന്റ് എന്ന് അറിയാന് വയ്യ അപ്പോൾ വര്ഷോപ്പില് നിന്നും ആരെയെങ്കിലും ഒരാളെ ഒന്ന് ഒരു ഒരാളിനെ ഒരു മെക്കാനിക്കൽനെ ഒന്ന് പറഞ്ഞു വിടാന് പറ്റുമോ ആ പുറത്തായിരുന്നു പുറത്തായിരുന്നു ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച ആ രണ്ടാഴ്ചയായി ഇവിടെ കേടുവന്ന് നിൽക്കുകയാണ് ഇല്ല ബാറ്ററി കമ്പ്ലെയിൻറ്റ് ഇല്ല ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കി ബാറ്ററിക്ക് കമ്പ്ലെയിൻറ്റ് ഇല്ല കൂളിങ്ങ് ഇല്ല അപ്പം മേശിരി ഒരു മേശിരി ഒരാളിനെ വിട്ട് വിടുവോ അതോ മേശിരി വരുവോ മേശിരി വരുവോ അതോ ഒരാളിനെ വിടുവോ പറയ് സ്റ്റാര്ട്ട് ആവുന്നില്ല സ്റ്റാര്ട്ട് ആവുന്നും ഇല്ല അപ്പം വരുമോ ഒന്ന് ഞാന് വീട്ടിലുണ്ട് ഇപ്പോഴുണ്ട് എനിക്കേ ഒരു പുറത്തേക്ക് പോകണമായിരുന്നു ഇപ്പോൾ അതുകൊണ്ടാ അപ്പോൾ ഒരു ഒരു അരമണിക്കൂറിന് ഒരു അര ഒരു മണിക്കൂറിനകത്ത് ഇങ്ങ് വരാന് പുതിയ വണ്ടിയാ വലിയ പഴക്കം ഇല്ലാത്ത വണ്ടിയാ

ടാറ്റാ സുമോ

ആറുമാസം പഴക്കമുള്ള വണ്ടി ആറുമാസം പഴക്കമേ ഉള്ളൂ അല്ല ഓയില് ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്തതാ അല്ല കമ്പനിക്ക് കൊടുത്താണ് ചെയ്തത് ആ പറയാം പറയാം വര്ഷോപ്പിൽ വരാം ഇല്ലില്ല അത് മതി മതി മതി ഈ നമ്പരിൽ വിളിച്ചാൽ മതി